ഹലോ ഹലോ മിനിയാണോ മിനി ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചുരുദാറ് തയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് തന്നായിരുന്നല്ലോ അതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് അറിയാനായിരുന്നു വിളിച്ചത് ചുരിബോട്ടം ആണോ സാധാരണയോ ഉം ഉം ആണോ ആം ആണോ ആ ഹാ ആണോ അ ഹാ ആ ആ ആ നല്ല തയ്യലുണ്ട് ഉം ആ സഹായിക്കാനാളുണ്ട് കുറച്ച് പേരുണ്ട് സീസണ് സീസണ് സമയമല്ലേ ആം ഇല്ല ഇല്ല ഇല്ലില്ലാ ആ തയ്ച്ചുതരാം എന്നത്തേക്കാണ് വേണ്ടത് ആ തരാം തരാം ഉണ്ടോ ആ ആ അതുകൊണ്ട് തയ്ച്ചുവിടാം ഒരു കുഴപ്പവുമില്ല മിനി ആ തരാം ഇനി ആ ഉണ്ടുണ്ടുണ്ടുണ്ട് ജോലിക്കാരുമുണ്ട് ആം ജോലിക്കാരുമുണ്ടെന്നെ അതുകൊണ്ട് എളുപ്പമുണ്ട് എപ്പോള് ഉണ്ടുണ്ടുണ്ടുണ്ട് ആ ആ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചുതരാം ആ സാരി ബ്ലൗസും തയ്ക്കും സാരി ബ്ലൗസ് തയ്ക്കും ആ ഉണ്ടുണ്ടുണ്ട് ആ ആണല്ലേ ആ ആ നല്ല കാര്യം ഈ പത്ത് ഇരുപത്തിയഞ്ച് വര്ഷമായി ആ ആ ആദ്യകാലം തുടങ്ങി തയ്ക്കുന്നതാണ് അതെ ആണോ ഉണ്ടല്ലേ ആ വേറെ ആ അതുതന്നെ അതെ മിനിക്ക് സാരി ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കേണ്ടത് ആ ഉം ആണല്ലേ സാധാ ബ്ലൗസ് തയ്ക്കുന്നതുപോലെയാണോ പുറകില് ഇങ്ങനെ കെട്ടൊക്കെ വെച്ച് മുട്ടിന് താഴെ ഇല്ല ഇല്ലെ ആണ് ആ ഹാ മിനി ചെറുപ്പക്കാരിയല്ലേ അതുകൊണ്ട് നല്ലതായിട്ട് ഇത്തിരി ഫാഷനില് തയ്ച്ചിടാമല്ലോ ഇല്ല ആ എന്നാല് ശരി ആണോ ആ എന്നാണ് വരുന്നത് ആം എന്നാണ് വരുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ വേറെ വിശേഷം ആ കാണാം ശരി ശരി താങ്ക് യൂ